ഞാൻ സന്ദർശിച്ചതിൽ വച്ച് എനിക്ക് ഏറ്റവും സവിശേഷമായി തോന്നിയ ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ കാട്ടുമേൽക്കാവ് എന്ന അമ്പലം എന്ന ക്ഷേത്രം അവിടെ അവിടെ ഞാനും എൻ്റെ കുടുംബം കഴിഞ്ഞ മാസം വരെ പോയി ആഗ്രഹങ്ങൾ പറഞ്ഞ് അവിടെ ആലിൽ മണി കെട്ടുകയും അവിടെ പൊങ്കാല ഇടുകയും ഒക്കെ ചെയ്തു അവിടെ സവിശേഷമായി ഒന്നാണ് അത് കായലിനും കടലിനും നടുവിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെല്ലുന്നവർക്കും ആസ്വദിക്കാനും തൊഴുവാനും ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ കഴിയും അവിടെ നമുക്ക് ഇ ചെന്നാൽ എന്തും കിട്ടും അവിടെ ചെല്ലമ്പം അവിടെ ചെന്ന് ഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ലഭ്യമാകും കായലിൽ നമ്മൾ ജങ്കാറെ കയറി അവിടേക്ക് ചെന്ന് അതില്ലെങ്കിലും നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ നല്ല സൈലൻ്റ് മൂഡ് ശാന്തമായ അന്തരീക്ഷമാണ് അവിടെ അതും ഈ കായലും കടലിനും നടുവിൽന്ന് പറയുമ്പോൾ നല്ല കാറ്റും നമ്മ നല്ല ശാന്തമായ അന്തരീക്ഷത്തെ നമ്മൾ ആകർഷിക്കാൻ മനുഷ്യർക്ക് തോന്നും അതുപോലെ ഞാനും എൻ്റെ കുടുംബത്തിനും വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ പോകാൻ ആഗ്രഹിക്കും എല്ലാ മാസവും ഞങ്ങൾ നമ്മൾ നമുക്ക് തോന്നും പോകാൻ എപ്പളും നമുക്ക് തോന്നും അങ്ങനെ ഒരു സ്ഥലമാണ് അത്